എന്റെ സൈക്കിൾ ഞാൻ പരിപാലിക്കാർ എന്നുവച്ചാൽ എന്റെ സൈക്കിൾ അത്യാവശ്യം നല്ല സൈക്കിൾ ഒക്കെയാണ് നല്ല രസമാണ് എന്റെ സൈക്കിൾ ഒക്കെ ഓടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാലിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക ഞാൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെ കടയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യാനും എല്ലാ കാര്യത്തിനും ഞാൻ നിൽക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര പോവാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും മടുപ്പിക്കുന്നത് വെച്ചാൽ ബൈക്ക് യാത്ര പോകാനൊക്കെ നല്ല രസമാണ് നല്ല അടിപൊളിയാണ് ബൈക്ക് യാത്രയൊക്കെ പോവാൻ വേണ്ടിയിട്ട് എന്താണ് പറയുക നമ്മളെ ലോങ്ങ് ഡ്രൈവ് നൈറ്റ് ഡ്രൈവ് പോലെ റൈഡ് പോവാനും കുറേ ദൂരെ ദൂരെ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് ബൈക്ക് കംഫർട്ട് ആണ് പക്ഷേ അതിനകത്ത് മടുപ്പിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ തന്നെ കുറേനേരം നമ്മൾ ഇരിക്കുന്നുണ്ട് തന്നെ നമ്മുടെ നടുവിന് ചെറിയ പ്രശ്നം വരാൻ ഇങ്ങനെ നടു ഇങ്ങനെ പുറം ഇങ്ങനെ കുനിഞ്ഞ് പുറം വേദനയും കഴുത്ത് വേദനയും ഇങ്ങനെ എടുക്കാൻ നടുവേദനയൊക്കേ എടുക്കാൻ നല്ല സാധ്യതയുണ്ട് മാത്രമല്ല ദീർഘദൂര യാത്രകളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാഗ്രത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജാഗ്രതയോടെ തന്നെയങ്ങ് പോവുക എന്താണ് പറയുക നല്ലൊരു ഇതാണ് നമുക്ക് എന്താണ് പറയുക നല്ലൊരു രസമാണ് ബൈക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൂടുതലും എല്ലാത്തിനും നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ബൈക്ക് ആണ് കംഫർട്ട് ആയിട്ടുള്ളത് മാത്രമല്ല നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരെയും കൂടുതലും ബൈക്കിൽ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും ബൈക്കിനോടാണ് ഇപ്പോൾ ഭയങ്കര താൽപ്പര്യം എന്ന് പറയുന്നത് ഇതാണിപ്പോൾ ദീർഘദൂര യാത്രയിലേക്കാണെങ്കിലും ബൈക്ക് നമുക്കെല്ലാത്തിനും കംഫേർട്ട് ആയിരിക്കും